ഞാൻ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് എന്നു വച്ചിട്ടുണ്ടങ്കിൽ ചാർജ് ഒക്കെ നല്ലോണ്ണം കയറും അതൊന്നും കുഴപ്പമില്ല പക്ഷെ കയറുമ്പോൾ പെട്ടന്ന് കയറും ഫാസ്റ്റ് ചാർജർ ആയിരുന്നു പിന്നെ അതു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മളിപ്പം എന്തെങ്കിലും അതായത് നെറ്റ് ഓൺ ആക്കിയില്ലെങ്കിൽ സീനില്ല നെറ്റ് ഓൺ അക്കിയിട്ടുണ്ടെങ്കിൽ ചാർജ് അതും ഇതുതന്നെ ഇങ്ങനെ ഇരിക്കും പക്ഷെ നെറ്റ് നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ നമ്മളിങ്ങനെ വെറുതെ വീഡിയോസ് ഒക്കെ നോക്കില്ലേ നെറ്റ് ഓൺ ആക്കിയിട്ട് അപ്പം വേഗം ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോവും അതാണ് ഇതിൻ്റെ എനിക്ക് മെയിൻ പ്രശ്നം എന്നു തോന്നിയത് ചാർജിൻ്റെ പ്രശ്നമാണ് പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ അതായത് കുറേ വീഡിയോ ഇപ്പോൾ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ഇരുന്ന് കാണുകയാണെങ്കിൽ ഫോൺ ഒന്ന് ചൂടാകുന്നുണ്ട് ശരിക്കും പുതിയ ഫോൺ ആകുമ്പോൾ അങ്ങനെ പെട്ടന്ന് ചൂടാകില്ല നമ്മൾ കുറേ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഇങ്ങനെ വേഗം ചൂടാകുന്നുണ്ട് അതൊരു പ്രശ്നമാണ് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ഹാങ്ങാണ് പെട്ടന്ന് ഹാങ്ങാവും അത് എനിക്ക് ഭയകര ഒരു ബാഡ് എക്സ്പിരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്